എനിക്കറിയാവുന്ന ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ നന്ദിനി സൂപ്പർ മാർക്കറ്റ് മോർ സൂവർ സൂപ്പർ മാർക്കറ്റ് കൂവക്കട സൂപ്പർ മാർക്കറ്റ് എറണാകുളം സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയൊക്കെ ആണ് എനിക്കറിയാവുന്ന മൊത്തവ്യാപാര വിപണികൾ എന്നു പറയുന്നത് കോട്ടയം ചന്ത ചങ്ങനാശ്ശേരി ചന്ത എറണാകുളം ചന്ത വാരണാസി ചന്ത കോഴിക്കോട് ചന്ത തുടങ്ങിയവയൊക്കെ ആണ് മൊത്ത വ്യാപാര വിപണികളിൽ ഇപ്പോഴും നല്ല വിലക്കുറവിലാണ് സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് കഴിഞ്ഞ ഇട കുറച്ച് കാലങ്ങളായി ചി ചില പച്ചക്കറി സാധനങ്ങളുടെയും പല ചരക്ക് സാധനങ്ങളുടെയും വിലക്ക് വൻ വ്യതിയാനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പഞ്ചസാര അ അരി ഗോതമ്പ് ഗോതമ്പ് പൊടി ബിസ്കറ്റുകൾ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ വമ്പൻ രീതിയിലാണ് വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് കാലാവസ്ഥ ലഭ്യതക്കുറവ് ഇതുമൂലം ഒക്കെ ആയിരിക്കാം ഈ സാധനങ്ങളിലൊക്കെ വില കുത്തനെ ഉയരാനും കുറയാനും ഒക്കെ കാരണമായത് ഇതു കൂടാതെ പച്ചക്കറികളിൽ തക്കാളി സവാള സവാള പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികൾക്കും വിലയിൽ വൻ വ്യതിയാനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇടക്കാലത്ത് തക്കാളിക്ക് മുന്നൂറ് രൂപവരെ കിലോയ്ക്ക് വന്നിരുന്നു സാധാരണ അങ് അ ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് ഇതിനൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഓൺലൈൻ സൂപ്പർ സൂപ്പർ ഷോപ്പിങ് ആപ്പുകൾ ആപ്പുകളെക്കുറിച്ച് പറയാനുള്ളത് അതിന് നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഉണ്ട് നല്ല വശങ്ങൾ എന്നു പറയുന്നത് സാധനങ്ങൾ എപ്പോഴും ലഭ്യത ലഭ്യത ലഭ്യത കാണും അതു കൂടാതെ സാധനങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചു വേണമെങ്കിലും നമുക്ക് ഓഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ള ഒരു ഗുണം നമുക്ക് വീട്ടിൽ കൊണ്ടു തരുന്നതാണ് പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങളെന്നു പറയുന്നത് ഇതിൽ നമുക്ക് സാധനം വരാൻ ചിലപ്പോൾ താമസം സംഭവിക്കാറുണ്ട് അത് നമുക്കൊരു ബുദ്ധി ബുദ്ധിമുട്ടാണ് ഇതുകൂടാതെ നമുക്ക് എങ്ങാനും മോശം സാധനമാണ് വരുന്നതെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും